ഞാൻ യോഗ ശീലമാക്കിയ വഴി എനിക്കൊരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് യോഗയെപ്പറ്റി പറയാണെങ്കിൽ ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിശീലന സമ്പ്രദായങ്ങളിലെ ഒന്നാണ് നമ്മുടെ യോഗ ഇന്ത്യ നമ്മുടെ ലോകത്തിന് നൽകിയ ഒരു മികച്ച സംഭാവനയാണ് യോഗ അതേമാതിരി യോഗേനെപ്പറ്റി പറയാണെങ്കിൽ ഒരു മനുഷ്യന് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ യോഗക്കുള്ളത് അതേപോലെ തന്നെ ഈ പതഞ്ജലി മഹർഷിയാണ് നമ്മുടെ യോഗകളുടെക്കേ കുലപതീന്ന് പറയുന്നത് യോഗാന്ന് എന്നാൽ ഇതിൻ്റെ അർത്ഥം തന്നെ ചേർച്ചന്നാണ് പിന്നെ തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ നമ്മുടെ ഈ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ച് വരുന്ന കുറെ മാനസിക പിരിമുറുക്കത്തിൻ്റെ പിരി അഴിക്കാൻ യോഗയ്ക്ക് ഒരു കഴിവ് തന്നെ ഉണ്ട് അത് വളരെ ഒരു മഹത്വരം തന്നെയാണ് അതെത്ര പറഞ്ഞാലും നമുക്കത് കുറെയില്ല അത്രയും പ്രശസ്തി ആർജ്ജിച്ചൊരു സംഭവമാണ് നമ്മുടെ യോഗാന്ന് പറയണത് പിന്നെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റാനും അതുവഴി ഒരു പുരാതന സമ്പ്രദായത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ശ്രമങ്ങൾ നടന്ന് വരുന്നുണ്ട് പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തെ അപേക്ഷിച്ചിട്ട് വളരെ നമുക്ക് പുരാതനമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് നമ്മുടെ യോഗയ്ക്ക് നമ്മുടെ പൂർവ്വികരായ ഋഷിമാരൊക്കെ ദീർഘകാലത്തെ ധ്യാന എന്താണ് മനസ്സ് മന നാഡികളിൽ നേടിയെടുത്ത വിഞ്ജാനമാണ് നമ്മുടെ യോഗാന്ന് പറയണത് വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്ന് കിട്ടിയ ഈ വിഞ്ജാനം പിന്നീട് നമ്മളുടെ എല്ലാ താളിയോല ഗ്രന്ഥങ്ങളിലൂടെ വരമൊഴിയായിട്ട് മാറുകയുണ്ടായി തലമുറകളായിട്ട് ഫലം കണ്ട് വരുന്നതും വിശ്വാസമാർജ്ജിച്ചതുമായ ഒരു ചികിത്സ മാർഗ്ഗമാണ് യോഗാന്ന് പറയണത് നമുക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും യോഗ അഭ്യസിക്കാന്നാണ് പണ്ട് ഉള്ളോരൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രം അതന്യ പറയണത് പിന്നെ ശരീരത്തിൻ്റെ വളവുകൾ യോഗയിലൂടെ നിവർത്തി നമുക്കെന്താ ശാസ്വകോശത്തിൻ്റെ പൂർണ്ണ സംവരണ ശേഷിയിലെ എത്തിക്കുകയും അതുവഴിയെന്താണ് പ്രാണവായുവിൻ്റെ ഉപയോഗം ശരിയായ നിലയിലും നമുക്കെത്തിക്കാൻ സാധിക്കും ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു എന്താ പറയാ രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു അതുവഴി തലച്ചോറിൻ്റെ പ്രവർത്തനം നമുക്കെന്താണ് ഉന്നതിയിലെത്തുന്നു ഉയർന്ന ചിന്തകളുണ്ടാകുന്നു വികാര നിയന്ത്രണം സാധ്യമാകുന്നു ആത്മീയ ഉന്നതികൾ നമുക്ക് ലഭിക്കും പിന്നെ യോഗയിലൊരുപാട് ഘടകങ്ങളുണ്ട് യമം യമം ആസനം പ്രാണായാമം ഭൃത്യാഹാരം ധാരണ ധ്യാനം ധ്യാനം സമാധി അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ യമം യമം ആസനം പ്രാണായാമം എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടീട്ടുള്ളതാണ് പ്രത്യാഹാരം പിന്നെന്താ സാധാരണ ധ്യാനം സമാധി എന്നിവ സന്യാസിമാർക്കവകാശപ്പെട്ടതാണ് ഇപ്പോൾ നമ്മളിപ്പം ഒരാളിപ്പോൾ യോഗ പരിശീലിക്കുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഘടകങ്ങളറിഞ്ഞിരിക്കണം യമം യമം എന്നിവയെ പ്രദിപാദിച്ചിട്ടുള്ളതാണ് ഒരുപാടാൾക്കാർ അറിഞ്ഞിട്ടുള്ളത് പാരമ്പര്യഘട്ടത്തിൻ്റെ തന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഗുണങ്ങളുള്ളൊരു ഒരു അഭ്യസ്ത വിദ്യ തന്നെയാണ് യോഗ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും യോഗ അഭ്യസിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഘട്ടത്തിൽ ഓരോ ചുവട് വെയ്പ്പിലും യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണ് പിന്നെ നമ്മൾ നേരത്തെ ഉണരാൻ ഉണരാൻ ശീലിക്കണം അതിന് നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങി നേരത്തെ എണീച്ച് നമ്മൾ രാവിലെ യോഗ നല്ല മൈൻഡക്കെ നല്ല റിഫ്രഷാക്കീട്ട് യോഗ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണം വേറെ തന്നെയാണ് ആദ്യം ധ്യാനിക്കുക പിന്നെ നമുക്ക് യോഗ ആരംഭിക്കാം ഒരു യോഗ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ രക്തയോട്ടം നമ്മുടെ ബുദ്ധി നമ്മുടെ പഠിക്കാനുള്ള കഴിവ് എല്ലാം തന്നെ കൂടി കൂടി വരുന്നതാണ് യോഗ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പവർ ഫുള്ളയൊരു ഐറ്റം വേറെ തന്നെയില്ല ഏറ്റോം മികച്ച് നിൽക്കുന്നത് തന്നെയാണ് യോഗ എല്ലാ ജനങ്ങളും യോഗ അഭ്യസിക്കുക തന്നെ ചെയ്യണം യോഗയുടെ നിയമങ്ങളറിഞ്ഞ് യോഗ അഭ്യാസിച്ച് ഇരിക്കുന്ന ഓരോ മനുഷ്യനും പിന്നെ തോൽവി എന്തെന്നറിയില്ല